നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിൽ രണ്ട് കാലത്തേക്കും മഴക്കാലത്തേക്കും വേനൽകാലത്തേയ്ക്കുമൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കരുതൽ ഉണ്ടാകുന്നൊരു സമയമാണ് ഇപ്പം നമ്മൾ മഴക്കാലത്തേയ്ക്ക് സൂക്ഷിച്ച് വയ്ക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കൊണ്ടാട്ടങ്ങൾ എന്ന് പറയും ഇപ്പം ഈ പപ്പടം അതുപോലുള്ള സാധനങ്ങൾ അതുപോലെ നമ്മൾ മുളക് വാങ്ങിയിട്ട് മോരിൽ മുക്കിയിട്ട് ഉണക്കിയിട്ട് നമ്മളത് മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കും പിന്നെ മാങ്ങ കിട്ടുന്ന നല്ല സീസണിൽ നമ്മൾ മാങ്ങ വേടിച്ചിട്ട് നന്നായിട്ട് ഉണക്കി വയ്ക്കും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് ആവശ്യം ഉള്ള സാധനങ്ങൾ നമുക്ക് പുട്ടുപൊടി പച്ചരി കടയിൽനിന്നൊക്കെ വാങ്ങിയിട്ട് നമ്മളത് കഴുകി വെയിലത്ത് ഇട്ട് ഉണക്കി പൊടിപ്പിച് കൊണ്ടുവന്ന് നമ്മളത് വർഷക്കാലം അതായത് വർഷക്കാലം വരുമ്പോഴേക്കും നമുക്കത് റെഡിയാക്കി വയ്ക്കും കുപ്പിലൊക്കെ ആക്കി റെഡിയാക്കി വയ്ക്കും അതുപോലെ മുളക് മഞ്ഞൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി നമ്മൾ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് ഒരു കരുതൽ വയ്ക്കും വർഷക്കാലം വരുമ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്ന സമയമാണ് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സമയത്തൊക്കെ അത് പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് അതൊരു കരുതൽ പോലെ സൂക്ഷിച്ച് വയ്ക്കും പിന്നെ മഴക്കാലത്ത് പിന്നെ നമുക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനാവും എല്ലാവർക്കും ഇഷ്ടം അപ്പം നമുക്ക് ചൂടുള്ളെ എളുപ്പത്തിൽ കഴിയ്ക്കാൻ പറ്റുന്ന അതായത് വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റാത്തതും വർഷക്കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളും ഉണ്ട് അതായത് കപ്പ പിന്നെ മുതിര മുതിരയൊക്കെ നമ്മൾ വേനൽക്കാലത്ത് അധികം കഴിക്കില്ല അത് ശരീരത്തിന് ചൂട് തരുന്നൊരു സാധനമാണ് അപ്പം നമ്മളത് ഏറ്റവും കൂടുതൽ കഴിക്കുക വർഷക്കാലത്ത് ആണ് അപ്പം പണ്ടുള്ള ആളുകളൊക്കെ പറയുക വർഷക്കാലത്ത് മുതിര കഴിച്ചാൽ കുതിരേൻ്റെ ശ്ശക്തി വരും എന്നാണ് പറയുക അപ്പം നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിലാണ് കുട്ടികൾക്ക് നല്ല ചൂടുള്ള കഞ്ഞി അതുപോലെ മുതിര വേവിച്ചത് പിന്നെ വർഷക്കാലത്തേക്ക് ഒക്കെ ആകുമ്പോൾ ചക്കയൊക്കെ ഉണ്ടാവുന്നൊരു സമയമാണ് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നല്ല ചൂട് കഞ്ഞി ചക്ക വേവിച്ചത് ഇതൊക്കെയാണ് നമ്മളെ പ്രധാന ഭക്ഷണങ്ങൾ